ഹലോ ചേട്ടാ ഒരു വർക്ക് ചെയ്യാൻ ഒരു വർക്ക് ചെയ്യാനുണ്ടല്ലോ ഒരു പ്ലാസ്റ്ററിങ്ങ് ചെയ്യാനുണ്ടായിരുന്നു അപ്പം അതിൻ്റെ മേളിലത്തെ മേളിൽ കയറുന്നവർക്ക് സേഫ്റ്റി വിറ്റിൽ വേണം പിന്നെ താഴെ രാ നാല് സൈ സൈഡിലുമെല്ലാം താഴെ വലിയ ഡീപ്പ് അല്ലേ അപ്പോൾ അതിന് വല ഇടണം വല ഇട്ട് സൂക്ഷിച്ച് വേണം ചെയ്യാൻ ആ ചെയ്തുതരും ഒരു ഒരു മൂന്ന് വലയുണ്ട്

ജോലിക്കാർക്ക് സേഫ്റ്റി ബെൽറ്റ് തരും നിൽക്കാനുള്ള ആ ബോർഡിങ്ങ് സെറ്റ് തരും മെഡിക്കൽ ഇൻഷുറൻസ് കിട്ടും പിന്നെ ഫുഡ് ആൻഡ് ആക്കോമോഡേഷൻ ഉണ്ട് കുടുംബത്തിനും ഉണ്ട് വർക്കർക്കും ഉണ്ട് നാളെ തൊട്ട് പോര് വേറേ ഒന്നുമില്ല ആ ഒരു നൂറ് പേർ കാണും ഓക്കെ താങ്ക് യു